ആ ടർഫ്കൾലും മാള്കൾലും ഉള്ള ഗെയ്മെപ്പം വ്യാപകമായിട്ട് കൂടിയിട്ടുണ്ട് നാട്ടിൻപുറത്ത് ഇപ്പോൾ കളിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ വലിയ ബിസിനസ്സ് ഫേമ്കൾ സ്ഥലം വാങ്ങിച്ച് കൂട്ടി അവിടെ ടർഫ്ളൊക്കൊണ്ടാക്കി ഇപ്പോൾ സെൻറ്ററ്കൾ പണിയ്കേയും അത് ലാഭകരമായ ബിസിനെസ്സായിട്ട് മാറ്റ്കേം ചെയ്യുന്നു